ആഹ് ശിൽപ്പയല്ലേ നിൻ്റെ വർക്കോകെ കഴിഞ്ഞാ അഹ് കഴിഞ്ഞുലെ വീട്ടിലെത്തിയാ ആഹ് ഒക്കെ നാന് എന്താ വിളിക്കാൻ കാരണം എന്ന് വച്ചാലെ എനിക്ക് ഡിജി ലോക്കറിൽ ഒരു അക്കൗണ്ടുണ്ട് അപ്പം ഒരു സുരാക്ഷാലങ്ങനത്തെ കുറിച്ചൊരു ഈമെയിൽ എനിക്ക് ഈമെയിലലേർട്ട് എനിക്ക് വന്നെ സൊ അത് കണ്ടപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ് സൊ അത് വന്നപ്പോൾ എനിക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കൊരു ഐ അറിവില്ല അപ്പോൾ നിനക്കാവുമ്പോൾ നീ സൈബറിൽലൊക്കെ വർക്ക് ചെയ്യണ കാരണം നിനക്ക് നല്ല ഐഡിയ ഉണ്ടാവില്ലെ അതിനെ കുറിച്ച് അപ്പോൾ അതിനെ കുറിച്ച് ചോദിക്കാനായിരുന്നു ഇത് നല്ല ഏഹ് വല്ല റിസ്കൊക്കെയുണ്ടോ എൻ്റെയിലാണെങ്കിൽ ഡിജിലോക്കറിലാണെ കുറെ ഏഹ് ബാങ്ക് ഡീറ്റൈൽസും അക്കൗണ്ട് ഡോക്യാമെൻ്റ്സും ഒക്കെ ഉണ്ട് കുറെ ഡോക്യമെൻ്സ് ആധാർ കാർഡ് ലൈസൻസ് എല്ലാതും ഡിജി ലോക്കറിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് എങ്ങാനും വല്ല സെക്യൂരിട്ടി പ്രശ്നങ്ങളുണ്ടങ്ങനെ ഈ ഡോക്യുമെൻ്റ്സ് ഒക്കെ ലീക്കാവാൻ ചാൻസ് ഉണ്ടോ അതുകൊണ്ടെനിക്ക് എന്തൊ ഒരു ഡൌട്ട് നല്ലൊരു പേടിയുണ്ട് അപ്പോൾ എനിക്കത് മാറ്റാനാണ് ഞാൻ വിചാരിക്കണത് അതിൻ്റെ പാസ്സ്വേർഡ് ഒക്കെ മാറ്റിയാലോന്ന് ഞാൻ വിചാരിക്കുക അപ്പോൾ ഒന്നും കൂടി നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാലോ പാസ്വേഡ് മാറ്റിയാൽ അപ്പോൾ അതെങ്ങനെ മറ്റാണെന്നാണെങ്കിൽ എനിക്കൊരായിഡില്ല നീ ഒന്ന് പറഞ്ഞേരവ്വോ എങ്ങനെയാണ് മാറ്റാണതിന് നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് പറഞ്ഞയോട്ട ആണോ ഒക്കെ അപ്പോൾ എങ്ങനെയാണ് മാറ്റുക പാസ്സ്വേർഡ് ആ അതെയോ ആദ്യം ഞാനിപ്പോൾ ഡിജി ലോക്കറിൽ ഞാനിപ്പോൾ കയറി ആ ആപ്പ് ഞാൻ ഓപ്പൺ ആക്കീട്ടുണ്ട് ഡിജി ലോക്കറ് ആ എന്നിട്ടതിനകത്ത് പാസ്സ്വേഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആഹ് ഞാൻ പാസ്വേഡ് ഓൾരെഡി ഉള്ള പാസ്വേഡ് ഞാൻ എന്റേറിയതു ആഹ് ആഹ് എന്നിട്ട് അപ്പുറത്ത് ഞാനൊരു പാസ്സ്വേഡ് ചെയ്ഞ്ച് പാസ്വേഡ് ഞാൻ കണ്ടു അത് നെക്കി നെക്കി അടുതത്ത് എന്താ ചെയ്യേണ്ടത് ഓക്കെ ആധാർ കാർഡ് എൻ്റർ ചെയ്യണം ആഹ് ഒരു മിനിറ്റെ ഞാനൊന്ന് ആധാർ കാർഡ് എൻ്റർ ചെയ്യട്ടെ ആഹ് ആധാർ നമ്പർ എൻ്റർ ചെയ്തു ആഹ് ഓ ടി പി വന്ന് വന്ന് ആഹ് ഓ ടി പി വന്ന് ഇനി ആ ചേഞ്ച് പാസ്വേഡ് ആ ഒരു റൈറ്റ് കോർണർൽ ഞാൻ കണ്ടു ഒരു പ്രൊഫൈൽന്ന് പറഞ്ഞ അത് കണ്ടു കണ്ടു ആഹ് ചേഞ്ച് പാസ്വേഡ് ഉണ്ട് അതിനകത്ത് ആ ചേഞ്ച് പാസ്വേഡ് ഞെക്കി എന്നിട്ട് വീണ്ടും ഓൾഡ് പാസ്വേഡ് എൻ്റർ ചെയ്യണം അല്ലേ ആഹ് ഞാൻ ഓൾഡ് പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്യട്ടെട്ടൊ ആഹ് എൻ്റർ ചെയ്തു ഓൾഡ് പാസ്വേഡ് എൻ്റർ ചെയ്തു ആ ഡിജി ന്യൂ പാസ്വേഡ് ഉള്ളത് എൻ്റർ ചെയ്യാൻ ഉള്ളത് കണ്ട് കണ്ട് ആഹ് ന്യൂ പാസ്വേഡ് എൻ്റർ ചെയ്തു ഞാൻ വിചാരിക്കുന്നു നല്ല ഡിഫികൾട്ടായിട്ടുള്ള കുറച്ച് സിംപിൾ ഒക്കെയുള്ള സിംപിൾ ഒക്കെയുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യാനാത് ഒട്ടും ഹാക്ക് ചെയ്യാൻ ഒന്നു അങ്ങനെ പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ എൻ്റർ ചെയാമെന്നു വിചാരിച്ച് ആഹ് ഞാൻ എൻ്റർ ചെയ്തെ ഇനി എന്താ കൺഫേം കോട് ആഹ് ഇതിനകത്ത് പാസ്വേഡ്ലെന്നെ ലോവർ കേസും നമ്പറും അപ്പാർ ക്കേസ് ഒക്കെ വേണമന്ന് പറീന്നിന്നിണ്ട് പിന്നെ സ്പെഷ്യൽ ക്യാരക്ടറും പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ആഹ് ഞാൻ എൻ്റർ ചെയ്തു എന്നിട്ട് സേവ് കൊടുത്തു ആഹ് ആഹ് സേവ് അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവുല്ലെ ആഹ് ആഹ് സേവ് ബട്ടൺ ആണുള്ളത് ഞാൻ സേവ് കൊടുത്തു ആഹ് കൺഫർമേഷൻ മെസ്സേജ് വന്നു വന്നു ലോഗൗട്ട് ചെയ്ത് വക്കണം അല്ലേ ഇപ്പോഴും ഡിജി ലോക്കർ ഒക്കെ പാസ്വേഡ് ഞാൻ മാറ്റീണ്ട് ഇനി ഞാൻ ബാക്ക് അടികുമ്പോൾ ലോഗൗട്ട് ചെയ്ത് എപ്പോഴും സേഫ്റ്റി പർപ്പസ്നു വേണ്ടി എപ്പോഴും ലോഗൗട്ട് ചെയ്ത് വെക്കണം ലെ ആഹ് ഓക്കെ ഞാനങ്ങനെ ലോഗൗട്ട് ചെയ്ത് വെക്കാറിണ്ടായിരുന്നില്ല ഓകെ ഇനി തൊട്ട് ഞാൻ എപ്പോഴും ഡിജി ലിക്കർ ലോഗൗട്ട് ചെയ്ത് വെക്കാം കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടി ആടി ഇത് അറിയാനായിരുന്നു ഞാൻ വിളിച്ചത് ഓ താങ്ക്സ് ടീ ബൈ